ഇന്ത്യൻ സിനിമകളേയും സംഗീതത്തേയും കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് അതില് നമുക്ക് ഇഷപ്പെട്ട സിനിമ ഗാനങ്ങൾന്ന് പറഞ്ഞാൽ ഒരുപാട് ഗാനങ്ങള് ഇഷ്ടാണ് അതിലിപ്പം പ്രത്യേകിച്ച് ഒരു പാ സോങ്ങ് ഗാനം പറയാൻ പറ്റില്ല ഇഷ്ടപ്പെട്ട ഗായകരെന്ന് പറഞ്ഞാല് യേശുദാസ് വിജയ് യേശുദാസ് താജുദീൻ വടകര തൻസീർ കൂത്തുപറമ്പ് അങ്ങനെയുള്ള ഒരുപാട് ആളുകളുണ്ട് അവരെയൊക്കെ നജീം അർഷാദ് അവരുടെ പാട്ടുകളൊക്കെ കേൾക്കാൻ ഒരുപാട് ഇഷ്ടമാണ് പിന്നെ എന്തൊക്കെത്തരം സിനിമകളും സീരിയലും ആണ് കാണാറ്ന്ന് ചോദിച്ചാൽ പരസ്പരം ചന്ദനമഴ മൗനരാഗം മൗനരാഗം അങ്ങനെയുള്ള ഒരുപാട് സീരിയലുകളൊക്കെയുണ്ട് സിനിമാന്ന് പറഞ്ഞാൽ ഒരുപാട് സിനിമകളും ഉണ്ട് ഇപ്പം നമുക്ക് ഇഷ്ടപ്പെട്ട സിനിമയെന്നില്ല ഏത് സിനിമയാണെങ്കിലും കാണുകയാണ് സമയം കിട്ടുമ്പോഴൊക്കെ ടിവിയിലിരുന്നിട്ടാണെങ്കിലും മൊബൈൽ ഫോണിലൂടെ ആണെങ്കിലും സിനിമകളും സീരിയലുകളും ഒക്കെ ആസ്വദിക്കുന്ന ഒരാളാണ് പിന്നെ ഇഷ്ടപ്പെട്ട നടി നടന്മാരും പറഞ്ഞാല് ദിലീപ് കാവ്യ മാധവൻ മമ്മൂട്ടി അവരെയൊക്കെ ഒരുപാട് ഇഷ്ടാണ് സിനിമയിലുള്ള എല്ലാവരേയും ഇഷ്ടാണ് അതിലിപ്പോൾ ഒരാള പ്രധാനായിട്ട് പറയാനൊന്നു ഇല്ല